ആ ഹലോ എന്നാ വിളിച്ചത്

കേക്കോ ഏത് കേക്കാ ആ പൈനാപ്പിൾ ഉണ്ട് കാരറ്റ് ഉണ്ട് പിന്നെ പിന്നെ പ്ലം ഉണ്ട് അതുപോലെത്തന്നെ മിക്സഡ് ആയിട്ട് ഉണ്ട് പിസ്ത ഉണ്ട് അങ്ങനെ വെറൈറ്റീ ഒത്തിരി ആ സ്ട്രോബറിയുണ്ട് വാനിലയുണ്ട് മ്മ്

അത് ആ ഒരു കിലോ അര കിലോ അങ്ങനെയാണ് തൂക്കം ഒരു കിലോയുടെതിന് തൊള്ളായിരം പിന്നെ പ്ലം ആണെങ്കിൽ ഒരു കിലോയുടേതിന് നാനൂറ്റി അൻപത് പിന്നെ കാരറ്റ് ആണെങ്കിൽ അഞ്ഞൂറ് പിന്നെ പിസ്ത ആണെങ്കിൽ എണ്ണൂറ് ആ അതുപോലെത്തന്നെ മിക്സഡ് കാരറ്റ് ആണെങ്കിൽ എഴുന്നൂറ്റമ്പത് ഇങ്ങനെ അതുപോലെ തന്നെ അതിന്റെ പകുതി മുന്നൂറ്റമ്പത് ഉണ്ട് ഹ്മ്മ്

തീർച്ചയായിട്ടും എന്നത്തേക്കാ അറിയിച്ചാൽ മതി ഏത് ടൈപ്പാ വേണ്ടത് ഏത് ഫ്ളേവറാ വേണ്ടത് രണ്ടും ബർത്ഡേ കേക്ക് ആണോ ഓക്കെ ആ അതിൽപിന്നെ പേരോ വല്ലതും ഉണ്ടോ വെക്കാൻ ഡേയ്റ്റോ പേരോ വീട്ടിൽ കൊണ്ട് വരണോ അതോ വന്ന് എടുക്കുമോ ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന ഹോം ഡെലിവറി ഉണ്ട് പിന്നെ വന്നു വാങ്ങുന്നതും ഉണ്ട് ആ അപ്പോൾ ലൊക്കേഷൻ ഒക്കെ ക്ലിയർ ചെയ്തു തരണം ഏയ് സ്ഥലമൊക്കെ പറഞ്ഞ് തരണം എന്ന് റൂട്ട് ഒക്കെ അപ്പോൾ പൈസ കൂടുവേ ആ വരുന്ന ആളിന് ഓക്കെ മ്മ് ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി ശരി ആ മതി മതി മതി ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ താങ്ക് യു ആഹ് നമ്പര് നമ്പര് നമ്പര് ഇട്ടു തരാം ഇട്ടു തരാം കേട്ടോ ഓക്കെ ശരി ശരി

ശരി ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി ഇല്ല ഇല്ല മറ്റേ നമ്പര് കോൺടാക്ട് നമ്പര് വേറെ ഇട്ടു തരാം സെൻഡ് ചെയ്യാം കേട്ടോ മ്മ് ഓക്കേ